നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരിതം എന്നു പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ തെക്കു പടിഞ്ഞാറൻ കാലം കാലത്തെ ഉയർന്ന അളവിൽ മഴ ലഭിച്ചതിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം വെള്ളപ്പൊക്കത്തിൽ മുങ്ങി പ്രളയം സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത് അതുപോലെ തന്നെ ഇവ ഏകദേശം പത്ത് കോടി രൂപയോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാപാര സ്ഥ സ്തംഭനം സ്റ്റോറിനുണ്ടായ സ്റ്റോറുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ ഒരുപാട് ഒരുപാട് പേരുടെ പ്ര പ്രയത്നമായിരുന്നു വീടുകൾ അവരുടെ സ്വപ്നങ്ങളാണ് ഈ വെള്ളപ്പൊക്കത്തിലൂടെ നാശമായത് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്നുള്ള ഒന്നാണ് തോട്ടം കൃഷി കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും അധികം വ്യവസായ സംരംഭങ്ങളിൽ നാശം ഉണ്ട് ഈ പ്രളയം കൊണ്ട് നാശം ഉണ്ടായത് കൃഷിക്ക് തന്നെയാണ് കൃഷിക്ക് തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചെറുകിട കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നത് അതുപോലെ തന്നെ എല്ലാ എല്ലാ സംരംഭകർക്കും ഈ വെള്ളപ്പൊക്കത്തിലൂടെ ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കം കൊണ്ട് പിന്നീട് അവർക്ക് ഓ ഓണമായിരുന്നാലും മറ്റ് ഒരു കാര്യങ്ങൾക്കും ആ അതിനുള്ള സാമ്പത്തികം ഇല്ലാതെ ഇരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇത് കേരളം കേരളത്തിലെ റോഡ് ട്രെയിൻ ഗതാഗതത്തെയും അതുപോലെ വിമാന സർവീസുകളെയും നല്ല രീതിയിൽ തന്നെയാണ് ബാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് വെള്ളപ്പൊക്കം വഴി കൊണ്ട് നമ്മൾ കുറെ അത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് നമ്മൾ അത് കുറെ അത് എന്തു പറയാൻ അത് കുറെ നേരിടേണ്ടി വന്നു നമ്മൾ അത് അതിൽ നിന്നും മോചനം നേടി നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ട് കു കുറെ പരിശ്രമിച്ചു